എന്തായിരുന്നു വയനാട്ടിലേക്ക് എവിടേക്കാണ് സ്ഥലങ്ങൾ എല്ലാം പ്ലാനിലുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്താൽ മതിയോ ആ ക്ലൈമറ്റ് അനുസരിച്ച് അറിയണം അല്ലേ ഈ ക്ലൈമറ്റിന് മെയിൻ ആയിട്ട് ബാണാസുര സാഗർ ഉണ്ട് ആ ഡാം ആ ഡാമ് അത് നല്ലൊരു ആ നല്ലൊരു വ്യൂ പോയിൻ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ബത്തേരിയിലുണ്ട് അതും ഡാം സൈഡ് ആണ് ഡാം സൈഡ് ആണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ട്രക്കിങ്ങ് പോലെയുള്ളത് ആണോ എല്ലാം കൂടെ വേണം അല്ലേ ആ നമ്മളിപ്പോൾ ഒരു പിന്നെ പാക്കേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ വൺ വീക്ക് ചെയ്യുന്നുണ്ട് ത്രീ ഡേ ചെയ്യുന്നുണ്ട് ത്രീ ഡേയ്സും ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പറ്റിയ ഈ ക്ലൈമറ്റിന് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ബാണാസുര അണക്കെട്ട് എടുക്കുന്നുണ്ട് പിന്നെ അമ്പലവയൽ ബത്തേരിയിൽ അവിടെ ഒരു ആ അവിടെ എടുക്കുന്നുണ്ട് നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രം എടുക്കുന്നുണ്ട് അതുപോലെ അവിടെ ഡാം പരിസരം ഒക്കെ എടുക്കുന്നുണ്ട് ആ പിന്നെ നമുക്ക് വരുന്ന ട്രക്കിങ്ങ് മുത്തങ്ങയും വരുന്നുണ്ട് നമ്മുടെ ഇവിടേയും വരുന്നുണ്ട് നാഗർഹോള അവിടേയും വരുന്നുണ്ട് ട്രക്കിങ്ങ് ഒക്കെ ഈ ഒരു ക്ലൈമറ്റിന് നല്ലതാണ് നമുക്കും ഒരുപാട് മൃഗങ്ങളെ കാണാം നല്ല രീതിയിൽ യാത്ര എൻജോയ് ചെയ്യാം അതേപോലെ പ്രകൃതി ആസ്വദിച്ചുള്ള ഒരു യാത്രയാണെങ്കിൽ ട്രക്കിങ്ങ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്ററ് അതു നമ്മൾ ത്രീ ഡേ പ്രോജെക്ടിൽ വരുന്നതാണ് നമുക്ക് അത് ഒരു ടൂ വരെ ഒരു ടൂ ഹവറാ ഒക്കെയാണ് വരുന്നത് ട്രക്കിങ്ങ് വരുന്നത് ആ ടൂ ടു ത്രീ ഒക്കെ ഹവറ് വരുന്നുണ്ട് നമുക്ക് ട്രക്കിങ്ങ് പിന്നെ ഈ ഒരു കാലാവസ്ഥയ്ക്കും പ്രകൃതി ആസ്വദിക്കാനും ആണെങ്കില് ഏറ്റവും ബെറ്ററ് ട്രക്കിങ്ങ് ആണ് ആ അത് നമ്മുടെ കാട്ടിക്കുളം സൈഡിലോട്ടുള്ള ഒരു യാത്ര ആയിരിക്കും ഏറ്റവുമ നല്ലത്